ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും നമ്മളുടെ പഠനത്തിനോടൊപ്പം തന്നെ ഒപ്പം വളർത്തി എടുക്കേണ്ട ഒരു കഴിവ് കൂടിയാണ് കായികപരമായിട്ടുള്ള കഴിവുകൾ ഇന്ന് ഈ ഇന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ നമുക്ക് പങ്കെടുത്ത് നമ്മളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് കായികപരമായിട്ടുള്ള ഒരു ഫീൽഡ് അതായത് നമ്മൾ കായികപരമായി നമ്മൾ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമ്മൾ ഫിസിക്കലി അതായത് നമ്മുടെ ശരീരം ഓക്കെ ആവണം നമ്മൾ പുറത്തു നിന്ന് ഫുഡ്ഡ് അങ്ങനെ വലിച്ചുവാരി കഴിക്കാൻ ഒന്നും പാടില്ല കാരണം നമ്മൾ ഫിറ്റ്നസ് ആണ് നോക്കേണ്ടത് അതുകൊണ്ടുത്തന്നെ പിന്നെ നമ്മൾ എല്ലാ ആക്ടിവിറ്റിസിലും പങ്കെടുക്കണം ഔട്ട്സൈഡ് ആക്ടിവിറ്റി അതായത് നമ്മൾ കുറേ ഓട്ടം ചാട്ടം അങ്ങനെ പല പല പല പല ഗെയിംസിൽ പങ്കെടുക്കുക നമ്മൾ എന്തുവന്നാലും പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം